ആ സിസ്റ്ററേ ഞാൻ എനിക്ക് വയ വയറിൻറെ അകത്തൊരു വേദന അപ്പം ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം ചെ പറഞ്ഞു അതിന് എന്നാ ചെയ്യണം

ആ ഞാൻ ഇതുവരെ ആ ആ ഞാൻ എനിക്ക്

ഓക്കെ എപ്പം വരണമായിരിക്കും സമ അങ്ങനെ സമയം വല്ലതും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി